എൻ്റെ നാട്ടിൽ ഒരു സാംസ്കാരിക ഉത്സവം എന്നു പറയുന്നത് പ്രധാനമായിട്ടെൻ്റെ മനസ്സിൽ ഓടി വരുന്നത് ആണ്ടല്ലൂർ കാവാണ് ആണ്ടല്ലൂർ കാവെന്നു വച്ചാൽ ചെറുപ്പം മുതലേ അവിടെയാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അമ്മേടച്ഛൻ്റേയും അമ്മയുടെ അമ്മയുടെ വീടൊക്കെ ആണ്ടല്ലൂരണ് അപ്പോൾ അവിടുത്തെ ദേശവാസികൾ ഒരു ഏഴു ദിവസത്തെ ഒരു വലിയ ഉത്സവം തന്നെയാണ് ആണ്ടല്ലൂർ ഉത്സവം അവിടുത്തെ ഐതീഹ്യം എന്നു പറയുന്നത് ശ്രീരാമനും രാമലക്ഷ്മണന്മാർ സീത പിന്നെ ഹനുമാൻ ബാലി സുഗ്രീവൻ ഈ ദൈവങ്ങളൊക്കെയാണവിടെ കെട്ടി ആടുന്ന ദൈവം കെട്ടി ആടുന്ന ദൈവമായിട്ട് പറയാനുള്ളത് അതുകൊണ്ടുതന്നെ അവിടത്തെ ഒരു പ്രധാനപ്പെട്ടതെന്നു പറയുന്ന ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ ആ ആർക്കും അറിയാൻ ഈ കേൾക്കാത്തൊരു സ്ഥലമെന്നു പറയാൻ പറ്റാത്തൊരു സ്ഥലമെന്നു പറയുന്നത് ആണ്ടല്ലൂരാണ് അവിടുത്തെ ഉത്സവമെന്നു പറയുന്നത് ഏഴു ദിവസവും അവർ കഠിനവ്രതവും അവിടുത്തെ പ്രസാദം അവിൽ മലർ അങ്ങനത്തെ പ്രസാദങ്ങൾ കൊണ്ടെല്ലാം അവിടുത്തെ ആ ഏഴു ദിവസം അവിടുത്തേയ്ക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ അക്കരെ ഇക്കരെയെന്നൊക്കെയാണ് പറയുക അക്കരയ്ക്ക് പോയി കഴിഞ്ഞാലവിടെ തന്നെ നിന്ന് മെയ്യാലു കൂടുകയെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതായത് എന്താ പറയുക ബാലി സുഗ്രീവൻ ശ്രീരാമൻ്റെ കൂടെ ബാലി സുഗ്രീവൻ ഓടുന്നതായിട്ടുള്ള അതേ സങ്കല്പങ്ങളിലാണ് ഈ ബാലി സുഗ്രീവൻ്റെ ഈ മെയ്യാലു കൂടലൊക്കെ പറയുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ഏഴു ദിവസം കഠിനവ്രതം അതുപോലെ പഴയ നമ്മളിത്രനാളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെല്ലാവരും മാറ്റി വച്ച് മീനോ ഒന്നുമില്ലാതെ മീൻ കറി തൊട്ട പാത്രങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ അവർ ഏഴു ദിവസത്തെ ഒരു വലിയ ആഘോഷം തന്നെ ആയിരുന്നു ആണ്ടല്ലൂരുത്സവം എന്നു പറയുന്നത് കുഞ്ഞുനാളിൽത്തന്നെ എന്താ പറയുക മനസ്സിൽ എപ്പോഴും വേഗം ഒന്ന് ഉത്സവമായാൽ മതി ഉത്സവമായിക്കഴിഞ്ഞാൽ തന്നെ അവിടെയുള്ള ഭാഗത്തിലും സ്കൂളുകൾക്ക് ഏഴു ദിവസം അവധി സ്കൂൾ കോളേജായിക്കോട്ടെ എല്ലാം ഏഴു ദിവസം അവധി ആയിരിക്കും അപ്പോൾ ഏഴു ദിവസവും അവിടെ പോയി നിന്ന് ഉത്സവങ്ങളെല്ലാം കണ്ട് ചന്ത മനസ്സിലെപ്പോഴും ഉത്സവം എന്ന് ഓർമ്മയൊക്കെ വന്ന് വേഗം ആണ്ടല്ലൂർ ഫെബ്രുവരി മാസത്തിലാണ് ആണ്ടല്ലൂർ ഉത്സവങ്ങൾ ആരംഭിക്കുക അപ്പോൾ എത്രയും പെട്ടന്നൊന്ന് ഫെബ്രുവരി ആയാൽ മതി എന്ന് കുഞ്ഞുനാളിലെ അതുമാത്രല്ല വേറൊരു കാര്യമെന്നാണ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു ഫീമെയിലായതുകൊണ്ടു തന്നെ എന്താ പറയുക ഉത്സവസമയത്ത് എപ്പോഴും എല്ലാവർക്കും പോകാൻ പറ്റില്ല എന്ത് എന്തായാലും ആണ്ടല്ലൂർ ഉത്സവ ആകുന്ന അപ്പോഴേക്ക് എങ്ങനെയെങ്കിലും അത് ശരിയാവും അത് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല എൻ്റെ ഓർമ്മ വച്ച നാളു മുതൽ ഇന്നേ വരെ ഞാൻ ആണ്ടല്ലൂർ ഉത്സവം മുടക്കിയിട്ടില്ല ഇതുവരെ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്നുതന്നെ ആഗ്രഹിക്കുന്നു